എൻ്റെ ചെറുപ്പം മുതലേ എനിക്കൊരു ടീച്ചറാകണമെന്നുള്ളൊരാഗ്രഹമായിരുന്നു എന്നെ പഠിപ്പിച്ച ടീച്ചേഴ്സതിന് എനിക്ക് ഒത്തിരി മോട്ടിവേറ്റഡായിരുന്നു ഞാനൊരു ഗ്രാജുവേറ്റായിക്കഴിഞ്ഞപ്പം ഞാനൊരു ടീച്ചറായിത്തീരാനായുള്ള എൻ്റെ ആഗ്രഹം ഞാൻ സഫലമാക്കി എനിക്ക് കൂട്ടികളെ പഠിപ്പിക്കുന്നതിൽ വളരെ സംതൃപ്തിയാണ് ഉണ്ടാകാറുള്ളത് കാര്യം ടീച്ചിങ്ങ് എന്ന് പറയുന്നത് വിജ്ഞാനം പകരുക എന്നുള്ളതാണ് നമ്മളിലുള്ള അറിവ് മറ്റൊരാൾക്ക് പകർന്നു കൊടുക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ആത്മസംതൃപ്തി എന്നുപറയുന്നത് വളരെ വലുതാണ് അതിൽ ഒരു ക്ലാസ്സിൽ കുട്ടികൾ വന്നെന്നാൽ അവർ കഴിവുള്ളവർ മുതൽ കഴിവില്ലാത്തവർ മുതൽ വളരെ കഴിവുള്ളവർ വരെ ഉണ്ടായിരിക്കും അതിൽ കഴിവുള്ള ഇല്ലാത്തവരെ വളരെ ശ്രദ്ധയോടുകൂടി അവരുടേതായ രീതിയിൽ അവർക്ക് ഇതിനോട് ഇൻട്രസ്റ്റ് ഉണ്ടാകത്തക്ക രീതിയിൽ നമ്മളവരെ പഠിപ്പിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന സാറ്റിസ്ഫാക്ഷൻ ആ കുട്ടി അറിവിലേക്ക് വരുമ്പോൾ നമുക്കുണ്ടാകുന്ന സാറ്റിസ്ഫാക്ഷൻ വളരെ വലുതാണ് അങ്ങനെ എൻ്റെ എൻ്റെ കര്യറിൽ എൻ്റെ കുട്ടികൾ അങ്ങനെയുള്ള ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികളെ പഠിപ്പിച്ച് അവരെ പഠിത്തത്തിലേക്ക് വന്നപ്പോൾ അവരുടെ മാതാപിതാക്കൾക്കുണ്ടായ സന്തോഷം അതിലേറെയാണ് പിന്നെ ടീച്ചിങ്ങെന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതനിലവാരത്തിൽ താഴ്ന്ന നിലയിൽ നമ്മൾ പറയുന്ന ലേബേഴ്സ് മുതൽ വളരെ വലിയ ഉദ്യോഗത്തിലെത്തുന്നവർ വരെ നമ്മളുടെ ജീവിതത്തിലൂടെ കടന്നുപോയവരുണ്ടായിരിക്കാം അവരെ നമുക്ക് പഠിപ്പിക്കാനുള്ള ഭാഗ്യമുണ്ടായിക്കാണും അത് നമ്മൾക്ക് വളരെ സന്തോഷവുള്ളവരാ അതിൽ നമ്മൾ പഠിപ്പിച്ച് ജീവിതനിലവാരം ഉയർന്ന നിലവാരത്തിലെത്തുന്ന കുട്ടികൾ നമ്മളെക്കാണുമ്പോളവർ റെസ്പെക്റ്റ് ചെയ്യുന്നത് കാണുമ്പോൾ നമുക്ക് അതിലേറെ സന്തോഷമാണ് നമ്മൾ പഠിപ്പിച്ചൊരു കുഞ്ഞ് പാഴായിപ്പോയില്ലല്ലോ എന്നുള്ളൊരു ആത്മസംതൃപ്തി വളരെ നൽകാറുണ്ട് അങ്ങനെ എൻ്റെ ഞാൻ പഠിപ്പിച്ച കുട്ടികൾ ഇപ്പോൾ നേ ഴ്സിങ്ങും കഴിഞ്ഞ് അവർ ഒരു ജീവിതനിലവാരത്തിലെത്തിയപ്പോളെന്നെ കാണാൻ വരികയും അവരെന്നോട് ആ എൻ എന്നോടുള്ള സ്നേഹം കൊണ്ടാണ് തിരിച്ച് തിരിച്ചുവന്നെന്നെ കാണാൻ വേണ്ടിയുള്ള ഒരാഗ്രഹം അവർക്കുണ്ടാകുകയും ചെയ്തത് അതെനിക്ക് വളരെ സംതൃപ്തി നൽകുന്നുണ്ട് എൻ്റെ പ്രൊഫഷനിൽ ഞാനതുകൊണ്ട് വളരെ സംതൃപ്തയാണ് എനിക്ക് കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ അവർക്ക് കൊടുക്കുന്നതിലേറെ അറിവ് എനിക്കുമുണ്ടാവുകയാണ് ചെയ്യുന്നത് കാര്യം നമ്മളുടെ വിജ്ഞാനം ഓരോ ദിവസം ചെല്ലുന്തോറും അപ്ഡേറ്റഡായികൊണ്ടിരിക്കുകയാണ് അതിനനുസരിച്ച് നമ്മളും അപ്ഡേറ്റഡാകാണ് അതൊരു ടീച്ചിങ് പ്രൊഫെഷനിലൂടെ എനിക്ക് വളരെ സഹായമായിട്ടുണ്ട് ഒരു ടീച്ചിങ്ങിൻ്റെ അപ്ഡേഷൻ വരുമ്പോൾ നമുക്കതിൻറ്റേതായ ട്രെയ്നിങ് കിട്ടുന്നു നമ്മളപ്പോൾ അതിലൂടെ അപ്ഡേറ്റഡാകുകയാണ് അതൊരു ടീച്ചറിനാണേറ്റവും കൂടുതൽ സാധിക്കാൻ പറ്റുന്നത് ഒരു ടീച്ചറെന്ന് പറയുമ്പോഴേത്തേക്ക് നമ്മൾ ആയെന്നൊരക്ഷരം മുതൽ നമ്മുടെ ജീവിതത്തിലെ ഉയർന്ന നിലവാരത്തിലെത്താനായിട്ടുള്ള കാര്യങ്ങൾ വരെ ഏകദേശം ഒരു മുക്കാൽ ഭാഗത്തോളം ഒരു ടീച്ചറിനറിവുണ്ടായിരിക്കും അപ്പോളാ ടീച്ചറിന് ടീച്ചറിനും അറിവ് വർദ്ധിക്കുന്നു കുട്ടികൾക്കും പക അത് പകർന്നുകൊടുക്കാൻ പറ്റുന്നു ആ കുട്ടികൾക്ക് പകർന്നുകൊടുക്കുന്നതിലൂടെ അവരുടെ മാതാപിതാക്കളെ നമ്മൾ സഹായിക്കുകയാണ് ചെയ്യുന്നത് അവർക്ക് വീട്ടിലിരിക്കുന്ന മാതാപിതാക്കൾക്കെല്ലാ സബ്ജെക്റ്റിനെക്കുറിച്ചും അറിവുണ്ടാകണമെന്നില്ല പക്ഷെ ഒരു അപ്ഡേറ്റഡായ ടീച്ചറിന് അതിനെപ്പറ്റി പറഞ്ഞുകൊടുക്കാനും അവരെ സഹായിക്കാനും അവരുടെ മക്കളെ നല്ലൊരു ജീവിത അന്തസ്സിലേക്കെത്തിച്ചേർക്കുവാനും നമ്മളെക്കൊണ്ട് സാധിക്കുന്നു അതുകൊണ്ട് ടീച്ചിങ് പ്രൊഫഷനെന്ന് പറയുന്നത് ഈ ലോകത്തിലെ ഏറ്റവും നല്ലയൊരു പ്രൊഫഷനായിട്ടാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നാറുള്ളത് അതുകൊണ്ടെൻ്റെ ആ ഒരു കരിയറിൽ ഞാൻ വളരെയേറെ ആത്മസംതൃപ്തിയിലാണ് അത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഉം